പൂന്തോട്ട പരിപാലനം ഒരു വിനോദ വൃത്തിയായിട്ട് എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് ചെറുപ്പം മുതലേ ഈ മാസം മാറി എന്നുള്ള ചെടിയോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കാരണമെന്താന്നു വെച്ചാല് അത് പല കളറില് ഓരോ മാസത്തിലും ഓരോ വ്യ കളറായിട്ട് ഇങ്ങനെ മാറും അപ്പോള് അത് പല രീതിയിലും വ്യത്യസ്ത കളറില് ഒരുപാട് കളക്ഷനുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ ഒരുപാട് ശേഖരിച്ച് പലയിടത്തുനിന്നും ശേഖരിച്ചിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലെനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെടി എന്നു പറയുന്നത് മാസംമാറിയുടെ വ്യത്യസ്ത ആകൃതിയിലും അതുപോലെ വ്യത്യസ്ത കളറിലൊക്കെയുള്ള മാസംമാറികളായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രല്ല മുല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോള് അതിൻ്റെ കുറ്റിമുല്ല അതായത് ഉണ്ടമുല്ല ഒരുപാട് നടുവായിരുന്നു പിന്നെ അതിനുശേഷമാണ് പല ചെടികളിലേക്കും ഞാൻ തിരിഞ്ഞത് ഇപ്പോഴും ഞാൻ ആ ഒരു ചെടി എന്ന് പറയുന്നത് എനിക്കൊരു വല്ലാത്തൊരു ഇഷ്ടവും ആകർഷണവുമാണ് കാരണം വ്യത്യസ്ത കളറുള്ള പൂക്കള് പിന്നെ അതുപോലെ തന്നെ പത്തണി മുല്ല ടേബിൾ റോസ് ഇങ്ങനത്തെ ചെടികളും എനിക്ക് നടുകയെന്നു പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ കോവിഡ് കാലത്താണ് ഞാൻ ചെടിയെ ചെടിയെ സംബന്ധിച്ചുള്ള കൂടുതല് കണ്ടെത്തലുകൾ നടത്തുകയും പിന്നെ അതുപോലെതന്നെ ഒരുപാട് ചെടികൾ പലയിടത്ത് നിന്നും ശേഖരിച്ച് വീട് എൻ്റെ സ്വന്തം വീട്ടില് ഞാന് നടുകയും പിന്നെ അതിന് പല രീതിയിലും സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെതന്നെ ഈ ചിരട്ടയില് കളർ കൊടുത്ത് പെയിൻറ്റ് കൊടുത്ത് എന്നിട്ട് അതിൽ മണ്ണ് നിറച്ച് പല ആകൃതിയിലും ചട്ടി ഉണ്ടാക്കി അങ്ങനെ പല രീതിയിലുള്ള ചെടികളും പലയിടത്ത് നിന്നും ശേഖരിച്ച് അത് വളരെ ഭംഗിയോടൂ കൂടെ തന്നെ ഞാൻ എൻ്റെ വീട്ടില് സെറ്റ് ചെയ്തിരുന്നു അപ്പോള് എനിക്കുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് ചെടികളോട് വല്ലാത്ത ഇഷ്ടമാണ് അപ്പോള് ഞാൻ ഈ ചെടികൾ നടുമ്പോള് എന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ അതുപോലെതന്നെ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കയൊക്കെ ചെയ്യാറുണ്ട്